ഞങ്ങളുടെ ഇവിടങ്ങ ളിലെ പെരുന്നാളുകൾക്കായിട്ടാണ് കൂടുതൽ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതിന് കൂടുതതലായ് ഉണ്ടാക്കുന്നത് പാലപ്പവും പിരളൻ കറിയുവാണ് പിരളൻ കറി ഒന്ന് ഇല്ലെങ്കിൽ ബീഫ് പിരളനോ ഇല്ലെങ്കിൽ താറവ് റോസ്റ്റോ വെയ്ക്കാറുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു കാര്യത്തിന് ഞങ്ങൾ കൂടുതലായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉണ്ടാക്കുന്നത് അതാണ് എല്ലാവർക്കും കഴിക്കാനും വലിയ തല്പര്യം പിന്നെ പുറത്ത് നിന്ന് വരുന്ന ആള്കൾക്ക് ചിലർക്ക് കപ്പയും ഇറച്ചിയ്യും ചിലർക്ക് കപ്പയും മീൻ കറിയും അത് വെളിയിൽ നിന്ന് നമുക്ക് വിരുന്നുകാരോ മറ്റോ വന്നാല് അവർക്കിഷ്ടമുള്ള രീതിയിൽ അത് ഉച്ചയോടുകൂടി ഉള്ള രീതിയ്ക്ക് കൊടുക്കത്തക്ക വിധമായിരിക്കും ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ചോറും ബീഫ് ഉലർത്തിയത് പിരളൻ മൊരുകാച്ചിയത് തോരൻ മീൻ വറത്തത് മീൻ കറി പിന്നെ ഒന്ന് രണ്ട് തരം അച്ചാറുകൾ ഇങ്ങനെ അനേകം കറികളും ചോറുമായിട്ടായിരിക്കും ഉച്ചക്ക് മിക്കവാറും ഊണ് ഊണ് കഴിയുമ്പോൾ ഊണ് കഴിഞ്ഞായിരിക്കും ഈ കപ്പ വേവിച്ചതോ മീൻ കറിയൊക്കെ സാധാരണ കഴിക്കാറ് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഈ ഉൽ ദിനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറ് ഉള്ളത്